പാചക ക്ലാസ്സുകളിലൊന്നും ഞങ്ങൾ പങ്കെടുത്തിട്ടില്ല എങ്കിലും ഞങ്ങളുടെ കാലഘട്ടങ്ങളിൽ ഒന്നും അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഞങ്ങളുടെ അമ്മയൊക്കെ ചെയ്യുന്നത് കണ്ടും വല്യമ്മമാരൊക്കെ ചെയ്യുന്നത് കണ്ടും ഞങ്ങൾ ഓരോന്നും ചെയ്യുന്നു പിന്നെ ഇപ്പോഴൊക്കെ ആയി ഞങ്ങൾക്ക് ഓരോന്ന് ആഗ്രഹം ഉണ്ടാവുമ്പോൾ പിന്നെ ബിരിയാണി ഉണ്ടാക്കാനും മപ്പാസ് വെക്കാനും അങ്ങനെയൊക്കെ കരിമീൻ മപ്പാസ് വെക്കാനും ഒക്കെ പ്രത്യേക പ്രത്യേക രീതിയിലാണ് യൂട്യൂബ് ഒന്നും നോക്കി ചെയ്യാൻ ഞങ്ങൾക്ക് അത്ര വശം ഇല്ലാത്തോണ്ട് ഞങ്ങൾ അതൊന്നും ചെയ്യാറില്ല പിന്നെ നല്ല നല്ല കറികളൊക്കെ കൂട്ടുമ്പോൾ ഓർക്കും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നേ പഠിച്ചിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കറുമുണ്ട് പക്ഷേ ആഗ്രഹങ്ങൾ ഒരിക്കലും സഫലം ഇതുവരെയും സഫലമായിട്ടില്ല എങ്കിലും ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇത്രയും കാലവും പോയിരുന്നത് ഇനിയിപ്പം എവിടെങ്കിലുമൊക്കെ ക്ലാസ്സിലെ യൂട്യൂബിലൊന്നും നോക്കാൻ ഞങ്ങക്കറിയത്തില്ല എവിടെയെങ്കിലൊക്കെ ആരെങ്കിലൊക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോയി പഠിക്കാമായിരുന്നു എന്ന് ഓ ഞങ്ങൾക്ക് മനസിലുണ്ട് അത്രയേ ഉള്ളൂ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാനായിട്ടാണെങ്കിലും ഞാൻ പഠിക്കണം എന്നാഗ്രഹം ഉണ്ട് പഠിക്കാനായിട്ട് പിള്ളേരോടൊക്കെ ചോദിച്ച് പഠിച്ച് യൂട്യൂബിൽ നോക്കി പഠിപ്പിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്